എന്റെ വീട്ടിലുള്ള ചെടികളെന്ന് പറയേണ്ടത് ഞാൻ മണി പ്ലാൻ്റ്സ് നല്ല നല്ല മുല്ലച്ചെടികൾ തുളസിച്ചെടികൾ പിന്നെയുള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ മണി പ്ലാൻ്റ്സ് പലതരത്തിലുള്ള മണി പ്ലാൻ്റ്സുകളുണ്ട് കറ്റാർവാഴയുടെ ചെടികളുണ്ട് സ്പൈഡർ പ്ലാൻസ്സ് ലക്കീ ബാംബു പിന്നെ പലതരത്തിലുള്ള വള്ളിച്ചെടികൾ വള്ളിച്ചെടികളിൽ പെട്ടതാണ് ശങ്കുപുഷ്പത്തിന്റെ ചെടികൾ ശങ്കുപുഷ്പത്തിന്റെ പൂവുണ്ടാവുന്ന ചെടിയാണ് പിന്നെയുള്ളത് വെറ്റില പോലത്തെ ഇലകളുടെ രൂപത്തിൽ ഉണ്ടാവുന്ന ഒരു വള്ളിച്ചെടിയാണ് വെറ്റില പിന്നെ പനിക്കൂർക്കയുടെ പനിക്കൂർക്കയുടെ ഇല ഉണ്ടാവുന്നൊരു ചെടിയുണ്ട് ആ പനിക്കൂർക്ക പനിക്കൂർക്കയെന്നാണതിനെ പറയുക അതുകൂടാതെ നമ്മൾ നല്ല നല്ല ചെടികൾ വീട്ടിൽ വച്ചു പിടിപ്പിക്കുന്നത് നമുക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് ഈ പിന്നെ വീടിന്റെ ഉള്ളിലാണെങ്കിലും ഈ കറ്റാർ വാഴയുടെ ചെടികളും നമുക്ക് മറ്റേ സ്പൈഡർ പ്ലാൻ്റ്സ് അങ്ങനെയുള്ള പലപല സാധനങ്ങൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും വച്ചു പിടിപ്പിക്കാം